ഇപ്പോൾ ഉൾനാട്ടിലൊക്കെയുള്ള കളികളെന്നൊക്കെ പറയുമ്പോൾ സാധാരണ കുട്ടികളൊക്കെ രാവിലെ തന്നെ എണീറ്റ് പോവുകയും കളിക്കുകയും അങ്ങനെയൊക്കെ അവർ എന്താ പറയാ അങ്ങനത്തെ കളികളോടൊക്കെ കൂടുതലും താല്പര്യം കാണിക്കുന്നവരാണ് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സൗഹൃദം ഒക്കെ നല്ല രീതിക്ക് ഉള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതലും രാവിലെ എണീറ്റ് കൂട്ടുകാരുമൊത്ത് രാവിലെ തന്നെ കളിക്കാൻ പോവുകയും അവർ കളിയൊക്കെ ആസ്വദിക്കുകയും അങ്ങനെയൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത് അപ്പം ഇങ്ങനെ ഡെയിലി കളിക്കാൻ പോകുന്നതിനെ തുടർന്ന് ഇവർ വിദ്യാഭ്യാസം നല്ലൊരു വിദ്യാഭ്യാസം ഒക്കെ എത്തി പഠിക്കാൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഇവർ കളിക്കാൻ പോയി അങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടാണ് ഉള്ളതെങ്കിൽ സ്കൂളീന്നു തന്നെ അവരുടെ കലാ ഈ കായിക രീതികളൊക്കെ ഉത്ഭാ എന്താ പറയാ നല്ല രീതിക്ക് തന്നെ മുന്നോട്ടു കൊണ്ടു പോകാനാണ് അവർ സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇന്നിപ്പോൾ എന്താ പറയാ വലിയ വലിയ ടീമുകൾ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിലൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നവർ ഉണ്ട് ഫുട്ബോൾ കളിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ കേരളത്തിന് തന്നെ ടീം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയാ ആ ടീമുകളിലേക്കൊക്കെ എത്താനൊക്കെ ഇവർക്ക് ഭയങ്കര ഉപയോഗപ്പെടുകയൊക്കെ ചെയ്യും പ്രയോജനപ്പെടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ കളിക്കുന്നതിലൂടെ അവർക്ക് അങ്ങനെ കുറെ പ്രയോജനങ്ങൾ ഒക്കെ കിട്ടുന്നുണ്ട് കാരണം ഇവരെ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ആവുന്നതിനോട് ആവുന്നതോടെ അവർക്ക് നല്ല നല്ല ഫീൽഡിലേക്ക് ഒക്കെ എന്താ പറയാ ഇതിലൂടെ തന്നെ നല്ല സമ്പാ നല്ലോണം സമ്പാദിക്കാനും അവർക്ക് എന്താ പറയാ ഒരു ഉല്ലാസമൊക്കെ കണ്ടെത്താനും സാധിക്കും